എനിക്ക് സന്ദർശിക്കാൻ ഏറെ ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ പ്രകൃതിയും അതുപോലെ തന്നെ മനോഹരമായ വെള്ളച്ചാട്ടവുമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും സന്ദർശ്ശിക്കാനും മനസ്സിന് കുളിർമ്മ നൽകാനും ഈ സ്ഥലങ്ങളാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് അടുത്തതായി എനിക്ക് ഏറെ ഇഷ്ടമുള്ള സ്ഥലമാണ് ഊട്ടി എന്തുകൊണ്ടെന്നാൽ പ്രകൃതിയുടെ ആ മനോഹര ദൃശ്യങ്ങൾ കാണണമെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ നേരിട്ട്

കുന്നിൻ ചരിവുകളും പൈൻ മരങ്ങളും പൂക്കളുടെ ഭംഗിയും വളരെ മനോഹരമാണ് ഊട്ടി